പ്രഷർ കുക്കർ വെച്ച് കുക്ക് ചെയ്യുന്നെങ്കിലേറ്റവും പെട്ടെന്ന് ഭക്ഷ്ണം പാകമാക്കുന്നതിന് ഹെൽപ്ഫുള്ളാണ് അതു പോലെ തന്നെ അപ്പോൾ എന്തെങ്കിലും രണ്ട് വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഹാർഡായിട്ടുള്ള വസ് ഭക്ഷ്ണവസ്തുവാണെങ്കിൽ പോലും പെട്ടെന്നു തന്നെ അത് വെന്ത് നമുക്കത് യൂസ്ഫുള്ളാകുന്നു അതിന് ഹെൽപ്ഫുള്ളാണ് എനിക്കേറ്റവും സ്യുട്ടബിളായിട്ട് തോന്നുന്നു പ്രഷർ കുക്കറുപയോഗിച്ച് ചെയ്യുന്ന ഫുഡ്ഡാണ് കാരണം അതിൽ നിന്ന് നമുക്ക് വേറെ പ്രോബ്ലംസൊന്നുമുണ്ടാകത്തില്ല നമ്മൾ ഇടുന്നതെല്ലാം അതിലേക്കെന്നെ വരികയും ചെയ്യും അപ്പോൾ അത് ഹെൽത്തിനും നല്ലതാണ് എന്താ പറയുക നമുക്കിപ്പോൾ ഫ്യൂവലൊക്കെയാണെങ്കിലും കുറച്ചുപയോഗിച്ചാൽ മതി ഗ്യാസ് കുറയാകത്തില്ല അപ്പതേറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളാണ് തുറന്ന പാത്രങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷ്ണത്തിനോട് താത്പര്യമില്ല കാരണം അത് പലതരത്തിലുള്ള വസ്തുക്കൾ വന്നു വീഴുക അപ്പം നമ്മളറിയാതൊക്കെ പോകുമ്പോൾ നമുക്കത് ഹെൽത്തിഷ്യൂസൊക്കെ വരാം അല്ലെങ്കിലെന്തെങ്കിലുമൊരു എന്തെങ്കിലൊക്കിഷ്യൂസൊക്കെ സംഭവിക്കാം ഭക്ഷ്ണം പാകം ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണേ ഏറ്റവും പെട്ടെന്നു നമുക്കത് കുക്കായിക്കിട്ടും അതു പോലെ സേഫ്റ്റിയായിട്ടതിന് ലിഡ്ഡുള്ളതു കൊണ്ട് നമുക്ക് അത് വെച്ചിട്ടാണെങ്കിലും പുറത്തു പോയി പെട്ടെന്നു വന്നാൽപ്പോലും അതിനൊന്നും സംഭവിക്കാൻ പോകത്തില്ല പക്ഷെ തുറന്നു വെച്ചു പാകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറാൻ സാധിക്കത്തില്ല എപ്പോൾ എന്തെങ്കിലൊന്ന് ചെറിയൊരീച്ച പോലും വീണാൽപ്പോലും ഫുഡ് വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്